ഞങ്ങളുടെ വീട്ടിൽ സുലൈമാനി ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവര്ക്കും നല്ല കടുപ്പത്തിലുള്ള ചായയാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ പിന്നേ പിന്നെ തേയില വാങ്ങിയിട്ട് വന്ന് നന്നായിട്ട് വെള്ളം തിളച്ചു കഴിഞ്ഞിട്ട് തേയില ഇടണം തേയില ഇട്ടുകഴിഞ്ഞിട്ട് ഇടക്ക് ഞാനീ ഇഞ്ചി ചതച്ചിടും ഇഞ്ചി നല്ലതാണ് ഇഞ്ചിയും പിന്നെ ഒരു ഏലക്കയും പിന്നെ അതിനകത്തോട്ട് ചതച്ചു വെറുതെ ഇടും ഇഷ്ടാ അതിന്റെ മണവും ഒക്കെ എല്ലാവര്ക്കും ഇഷ്ടാ എന്നിട്ട് പിന്നെ കുറച്ച് പഞ്ചസാരയിട്ട് പിന്നെ എടുക്കും ചിലപ്പോൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കും അതിൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ നല്ല സുലൈമാനി കിട്ടും അപ്പം എല്ലാവര്ക്കും ഇഷ്ടമാണ് എല്ലാം അങ്ങനെ അങ്ങനെയാണ് ഉണ്ടാക്കാറ് ഇവിടെ അപ്പം നല്ല കുറച്ച് ഒരു ഇഞ്ചിക്കഷ്ണം ചതച്ചിട്ടതും ഒരു ഏലക്ക ഇതും ഉണ്ടങ്കിൽ സൂപ്പര് ചായ കിട്ടും അത് നല്ല സ്ട്രോങ്ങിൽ ഇടണം നല്ല കടുപ്പത്തൽ നല്ല ചുവന്ന ചായ എടുക്കണം അന്ന് വെച്ച് കയ്ക്കാന് പാടില്ല എല്ലാം ഒരു പാകത്തിന് വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞിട്ട് വേണം പൊടിയിടാന് പൊടിയിട്ടിട്ട് കുറച്ച് നേരം തിളക്കാന് വെക്കണം എന്നിട്ട് നമ്മൾ അല്ലെങ്കില് വെള്ളം ചൂടാ വെള്ളം ചൂടാക്കുമ്പോൾ തന്നെ നമ്മൾ ഇഞ്ചി ഇടണം കേട്ടോ ഇഞ്ചി ചതച്ചിടണം എന്നാലേ ആ ഫ്ലേവർ എല്ലായിടത്തും കിട്ടുകയുള്ളൂ